ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് ഹിന്ദി ഏറ്റവും കൂടുതലായി ആണ് ഔദ്യോഗിക ഭാഷ ഇന്ത് ഹിന്ദിയാണ് പക്ഷേ ഹിന്ദി ആണെങ്കിലും മലയാളം ആണ് മെയിനായിട്ട് ഉള്ളത് മലയാളികൾ മലയാളം സംസാരിക്കുന്നു ഉറദു ഉറുദു സംസാരിക്കുന്നു ഹിന്ദി ഹിന്ദി ഹിന്ദി ഹിന്ദി ഹിന്ദിയായിട്ടുള്ള സംസാരിക്കുന്നു പശ്ചിം ബംഗാൾ ബംഗാൾ ഭാഷ സംസാരിക്കുന്നു

ഇംഗ്ലീഷ് കൂടുതലായിട്ടും ഇന്ത്യയിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നില്ല തമിഴരു തമിഴ് സംസാരിക്കുന്നു മലയാളത്തിൽ ആണെങ്കിൽ മലയാളത്തിൽ ആണെ തന്നെ പോലും ഇപ്പോൾ പതിനാല് ജില്ല ഉണ്ടെങ്കിൽ പതിനാല് ജില്ലയിലും പതിനാല് ലാംഗ്വേജാണ് അതായത് ഇടുക്കി ഇടുക്കി ജില്ലയിൽ ഒരു ഒരു ഭാഷ ഒരു മലയാള ഒരു ലാംഗ്വേജ് കോട്ടയം ജില്ലയിൽ വേറൊരു ലാംഗ്വേജ് വയനാട് ജില്ലെ വേറൊരു ലാംഗ്വേജ് കണ്ണൂർ ജില്ല വേറൊരു ലാംഗ്വേജ് കോഴിക്കോട് വേറൊരു ലാംഗ്വേജ് പാലക്കാട് വേറൊരു ലാംഗ്വേജ് കാസർഗോഡ് വേറൊരു ലാംഗ്വേജ് കണ്ണൂർ വേറൊരു ലാംഗ്വേജ് അതുപോലെ ഓരോരോ ജില്ലകളിലും ഓരോരോ ഭാഷകൾ വ്യത്യാസം പിന്നെ മലയാള ഭാഷ തന്നെയല്ല ഹിന്ദ മലയാളത്തിൽ ആണുള്ളവരാണെ തന്നെ പോലും പല പല ഭാഷകൾ അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട് ഹിന്ദി സംസാരിക്കുന്നരുണ്ട് മലയാളം സംസാരിക്കുന്നവരുണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലെ വെച്ച് നോക്കുമ്പോഴ എല്ലാ സ്റ്റേറ്റുകളിലും വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടും ലാംഗ്വേജ് വ്യത്യാസമുള്ളത് ഓരോ സ്ഥലങ്ങളിൽ പതിനാല് ജില്ലേണ്ടെ ഞാ പതിനാല് ജില്ലേണ്ട പതിനാല് ജില്ലയിലും പതിനാല് ലാംഗ്വേജാണ് കൂടുതലായിട്ടും പിന്നെ കന്നഡ ഇന്ത്യയിലെ ഒരു കർണാടക വരുമ്പോൾ കന്നഡ വരുന്നു പശ്ചിമ ബംഗാൾ വരും അല്ല മധ്യപ്രദേശ് വരുമ്പോ ഹിന്ദി മധ്യപ്രദേശത്ത് തന്നെ ഓ മറ്റേ ഒഡീഷ വരുന്ന ഓടി ഒ ഓടിയ ഭാഷ അതുപോലെ ഓരോ ലാംഗ്വേജുകളിലുള്ള വ്യത്യാസങ്ങളും ഓരോരോ ഭാഷ ഭാഷാ സ്റ്റൈ ശൈലികളും ഓരോരോ മേഖലകളിലും ഓരോരോ ഇതാണ് ഓരോരോ പ്രാനിനിധ്യയങ്ങളാണ് ഓരോരോ ഭാഷകളിലുള്ളത് അത്പോലെ തന്നെ ഓരോരോ സംസ്ഥാനങ്ങളിലൽ ഭാഷകൾ സംസ്ഥാന ഭാഷകളുണ്ടല്ലോ സംസ്ഥാന ഭാഷകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഓരോ സംസ്ഥാനങ്ങളിലും കേരളത്തിലാണേൽ കേരളത്തിലും മലയാളം തമിഴിലാണ് തമി്ഴ് തമിഴ് കർണ്ണാടത്തിലാണ് കർണാടക കന്നഡ ആസാമാണെ ആസാം ഭാഷ മധ്യപ്രദേശാണ് മധ്യപ്രദേശൻ്റെ വേറൊരു തരം ഹിന്ദി ഭാഷ ഒഡീഷ വരുന്ന ഒഡീഷ വരുന്നത് അതൊരു വേറൊരു ഭാഷ ഒടിയ ഭാഷ വരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ഭാഷ ശൈലികളും വ്യത്യാസങ്ങളും ഉണ്ട്